നമ്മൾടെ ഗ്രാമത്തിലെ ആളുകളൊക്കെ വായിപ്പയെടുക്ക്ന്നത് ബേങ്കുകളിൽ നിന്നാണ് അവരെ കൃഷി ആവശ്യങ്ങള് അതുപോലെ തന്നെ വിവിധ സംരംഭങ്ങളാരംഭിക്കുന്നതിന് അതുപോലെ തന്നെ കല്യാണ ആവശ്യങ്ങൾക്ക് വീട് വെക്കുന്നതിന് എന്നൊക്കെയാണ് അവര് വായ്പ എടുക്കുന്നത് മറ്റ് വീട് വെക്ക്ന്നേനും അതുപോലെ തന്നെ കല്യാണ ആവശ്യങ്ങൾക്കും ഒക്കെ വായ്പ എടുക്കുന്നതിൻ്റെ ദോഷഫലം എന്ന് പറയുന്നത് നമ്മള് സംരംഭങ്ങളൊക്കെ എടുത്ത് വിജയിപ്പിക്കയാണെങ്കിൽ നമുക്ക് അതിൽനിന്നുള്ള ആദായം കൊണ്ട് തന്നെ നമുക്കീ വായ്പാ തിരിച്ചടവ് നടത്താൻ വേണ്ടി സാധിക്കും എന്നാൽ കല്യാണമാവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ തന്നെ വീട് വയ്ക്കാണെങ്കിലും നമുക്കതിൽ നിന്നൊര് വരുമാനം കിട്ടുന്നില്ല അപ്പോൾ വരുമാനം കിട്ടത്തക്ക രീതിയിലിള്ള കാര്യങ്ങളക്കെ കാര്യങ്ങളായ റിസോർട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഹോം സ്റ്റേ പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വരുമാനം കിട്ടും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അത് തിരിച്ചടവ് നടത്തേ ചെയ്യാം അപ്പം അതിൻ്റെ ദോഷഫലങ്ങളെന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് പിന്നെ എന്നാൽ സാധാരണയായിട്ട് പലിശ കൂടുതല് വെരുന്നതൊക്കെ ആണെങ്കിലും ഒരു ദോഷഫലം തന്നെയാണ്